കേരളത്തിലെ കാർഷിക വ്യവസായത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നും പറയുന്നത് കാലാവസ്ഥ തന്നെയാണ് നമ്മൾ കൃത്യമായ സമയത്ത് മഴ കിട്ടാതിരിക്കുകയും കിട്ടുന്ന സമയത്ത് മഴ കൂടുതൽ തോതിൽ കിട്ടുന്നതും അതുപോലെത്തന്നെ എല്ലാ സമയത്തും ഈ ഓവർ ആയിട്ടുള്ള വെയിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടത്തെ കാർഷികവിളകൾക്കുള്ള വെല്ലുവിളികൾ പോരാത്തതിന് നമ്മളുടെ കാർഷിക മേഖല നല്ല രീതിയിൽ പ്രവർത്തിക്കാത്തതുമൂലം കർഷകർക്ക് കിട്ടേണ്ട പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും മറ്റതും കിട്ടാതിരിക്കുന്നതും ഈ കാർഷിക മേഖല നേരിടുന്നൊരു വെല്ലുവിളിയാണ്